അപ്പം നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പ്രധാന സാമൂഹ്യ ക്ഷേമ വികസന പരിപാടികളും സംരംഭങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയ്നായിട്ട് പറയാം വിദ്യാഭ്യാസം ആരോഗ്യസംരക്ഷണം ദാരിദ്ര്യനിർമാർജ്ജനം സ്ത്രീശാക്തീകരണം അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും നമ്മുടെ ജില്ലാ മുന്നിലിട്ട് മുന്നിട്ട് നിൽക്കുന്നതാണ് പിന്നെ നമുക്ക് അതായത് പ്രദേശത്തെ ജനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന ഒരുപാട് സർക്കാർ പദ്ധതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പറയാം വേണമെങ്കിൽ പറയാം ദേശീയ രോഗനിയന്ത്രണ കേന്ദ്രം സ്ത്രീ ശാക്തീകരണ മിഷൻ പിന്നെ സോഷ്യൽ സെൻറ്റർ ഫോർ സോഷ്യൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അങ്ങനെ ഒരുപാട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് അതായത് നമ്മൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു ജില്ല തന്നെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ഒരു എല്ലാ തരത്തിലുള്ള പിന്നെ ചികിത്സ കാര്യങ്ങളും അതും മെച്ചപ്പെട്ട രീതിയിലുള്ള എല്ലാ എല്ലാ തരത്തിലുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് നമുക്ക് മെയ്നായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിനു തന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ അഭിമാനിക്കാം കാരണം നമ്മുടെ ജില്ല അത്രയും മുന്നിട്ട് നിൽക്കുന്നതാണ്